ഇന്ത്യയിൽ പൊതുവേ ഗതാഗത സംവിധാനം എന്നു നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ സ്വകാര്യ വ്യക്തികൾ ഉപയോഗിക്കുന്നതു കാറാണ് പിന്നേ പൊതുവായിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ട് ബസ് അതുപോലെ റെയിൽവേ ഗതാഗതം പിന്നെ വിമാന സർവീസുകളുണ്ട് പക്ഷെ പൊതുവായിട്ട് ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ട് ബസ്സും ട്രെയിനും ആണ് റെയിൽവേയിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾക്കാർ ഒരുപാട് പേരു യാത്ര ചെയ്യുന്നുണ്ട് പിന്നെ അതിലുള്ള ഒരു ഏറ്റവും വലിയ ഒരു അപാകത എന്നാൽ അതായത് പ്രശ്നമായിട്ടു തോന്നും പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് റിസർവേഷൻ ചെയ്ത് ട്രെയിനിലോട്ടു പോകുമ്പോൾ ആ സീറ്റിൽ വേറൊരാൾ കയറി ഇരിക്കും ബുക്ക് ചെയ്യാത്ത ഒരാളായിരിക്കും അവിടെ കയറി ഇരിക്കുന്നത് അപ്പോൾ അത് ബുക്ക് ചെയ്തവർക്കു ബുദ്ധിമുട്ടാണ് ബുക്ക് ചെയ്യാത്തവർ നോർമലായിട്ട് ടിക്കറ്റ് എടുക്കാതെ വന്ന് ബുക്ക് ചെയ്ത സ്ഥലത്തൊക്കെ കയറിയിരിക്കുന്നത് ഒരു വലിയ തടസ്സമാണ് പക്ഷെ ഇത് ഇത് യാത്രാ തടസ്സമാണ് അല്ലാതെ പൊതു ഗതാഗത തടസ്സവുമായിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഈ ട്രാൻസ്പോർട്ട് ബസ് നമ്മൾ അറിയുന്ന ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ്സാണ് അപ്പോൾ ഈ ബസ് സഞ്ചരിക്കുന്നത് അറിയാമല്ലോ കേ റോഡുകളിലൂടെയാണ് ഇതു റോഡുകളിൽ ഒരു മഴപെയ്തു കഴിഞ്ഞാൽത്തന്നെ റോഡ് മൊത്തം കുഴിയാണ് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇഷ്ടംപോലെ ബ്ലോക്ക് അപകടങ്ങൾ സംഭവിക്കുന്നു അപ്പം ഈ അപകടങ്ങൾ കാരണം ബ്ലോക്കുകൾ ഉണ്ടാകുന്നു പിന്നെ വേറെ മറ്റൊരു കാരണം കാര്യമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഓരോ ഓരോ വർഷവും വണ്ടികളുടെ എണ്ണം വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ടു വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പക്ഷെ ഇതിനു സഞ്ചരിക്കുന്ന റോഡിൻ്റെ വീതിയും വലിപ്പത്തിലൊന്നും ഒട്ടും വ്യത്യാസവും വരുന്നില്ലതാനും അപ്പോൾ ഇങ്ങനെ റോഡ് വീതി കൂടാതിരുന്നിട്ട് വണ്ടികളുടെ എണ്ണം കൂടുന്നത് ഒരുപാട് ഈ ട്രാഫിക് ബ്ലോക്കു പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അപ്പോൾ നല്ലത് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട് ഗണ്യമായ വർദ്ധനയുണ്ട് അതുകൊണ്ട് തന്നെ റോഡിനു റോഡിൻറ്റേതാണ് അതായത് റോഡിൻ്റെ വീതി കൂടണം ട്രാഫിക് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം എങ്കിൽ മാത്രമേ ഇതൊക്കെ നല്ല രീതിയിൽ ട്രാഫിക് അതായ പൊതു ഗതാഗതം നന്നായിട്ടു മുൻപോട്ടു കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ